ആശുപത്രികളില് വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് അതിനു ഒരു കാരണമായി വരുന്നത് ഡോക്ടര്മാരുടെ എണ്ണ കുറവാണ് നമ്മുടെ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടര്മാര് നമുക്ക് സര്ക്കാര് ആശുപത്രികളില് ഉണ്ടാവാറില്ല

പിന്നെ മഴക്കാലം അടുത്തതോടെ പകര്ച്ചവ്യാധികളും പ് പലവിധ പനികളും കൂടി വരുന്നത്കൊണ്ട് ഒരു ഡോക്ടര് തന്നെ കൂടുതല് രോഗികളെ പരിശോധിക്കേണ്ടി വരുന്നു ഓരോ രോഗികളുടെയും വ്യതൃസ്തമായ കാരണങ്ങള് കേട്ട് മരുന്ന് കുറിച്ച് കൊടുക്കുന്നതിനു കൂടുതല് സമയം എടുക്കുന്നു അപ്പം മറ്റു പേഷൃന്റ് രോഗികള്ക്ക് കുറെ സമയം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് ഓരോ രോഗികളെയും ഡോക്ടരുമായി കണ്ട് അതിനു മരുന്ന് വാങ്ങുവാന് സമയം വര്ദ്ധിക്കുന്നതോടെ അസുഖങ്ങള് ഭേദപ്പെടാന് ഉള്ള സാധൃത വളരെയേറെ കുറവായിട്ടാണ് വരുന്നത്